ഫിക്ഷൻ എഴുതണോ നോൺഫിക്ഷൻ എഴുതണോ എന്ന് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഫിക്ഷൻ എഴുതാനാണ് എനിക്കിഷ്ടം എന്നു ഞാൻ പറയും ഒരു പുതിയ ലോകം പുതിയ കഥാപാത്രങ്ങൾ പുതിയ കഥ എന്നിവ സൃഷ്ടിക്കുന്നതിൽ എന്നെ ശരിക്കും എന്തോ ഒന്ന് പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഫിക്ഷനായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഫിക്ഷൻ എഴുതുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ എൻ്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതിനെ സ്വതന്ത്രമായി എനിക്ക് എഴുതാൻ സാധിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ആവശ്യമുള്ള എന്തും സൃഷ്ടിക്കാൻ എനിക്ക് കഴിയണം അതാണ് അതിനെ വളരെ എനിക്കൊരു പ്രചോദനമാക്കുന്നതും തീർച്ചയായും ഫിക്ഷൻ എഴുതുന്നതും വെല്ലുവിളി നിറഞ്ഞതാണ് അതേപോലെതന്നെ പുതിയ കഥാപാത്രങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങൾ എന്നിവ സൃഷ്ടിക്കാൻ വളരെയധികം പരിശ്രമം തന്നെ ആവശ്യമാണ് പക്ഷെ എനിക്ക് പൂർണ്ണമായും പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിൻ്റെ സന്തോഷം അതിനെയെല്ലാം വാല്യൂ ചെയ്യുന്നതാണ് ഫിക്ഷൻ അല്ലാത്തതിനെ സംബന്ധിച്ചെടുത്തോളം അത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അതെനിക്ക് ശരിക്കും ഇഷ്ടമല്ല അതായത് ഫിക്ഷൻ അല്ലാത്ത പുസ്തകങ്ങൾ വായിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ അത് എഴുതുന്ന കാര്യങ്ങൾ വരുമ്പം അതല്പം വരേണ്ടതായി എനിക്ക് തോന്നുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു തോന്നൽ നോൺഫിക്ഷൻ എഴുത്തിൽ അത്രയും എനിക്കൊരു മനസ്സിനൊരു ഇഷ്ടമില്ല എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ജെ കെ റൗളിങ്ങ് ഹാരി പോട്ടറിൻ്റെ സൃഷ്ടാവായി അല്ല എനിക്ക് അയാളെ ഇഷ്ടം റൗളിങ്ങിനെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഒരു മാന്ത്രികലോകം ഒരു മാജിക്കൽ വേൾഡ് സൃഷ്ടിക്കാനുള്ള അവളുടെ കഴിവാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാൻ കാരണം ഈ മുഴുവൻ ഈ മുഴുവൻ പ്രപഞ്ചവും അവളുടെ തലയിലുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റൗളിങ്ങിൽ നിന്ന് ലോകം ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഹാരി പോട്ടറിന് ഇത്രയധികം സവിശേഷമാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഇതെന്ന് ഞാൻ കരുതുന്നു എൻ്റെ പ്രിയപ്പെട്ട കവി അവരാണ് ഞാൻ ശരിക്കും ആരാധിക്കുന്ന മറ്റൊരു എഴുത്തുകാരൻ നീൽ ഗൈമാനാണ് നീൽ ഗൈമാനെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥകളെപ്പോഴും വളരേ വളരെ ഒരു ഒരു ഗുഡ് ഫീൽ നൽകുന്നതാണ് എൻ്റെ സ്വന്തം എഴുത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണതെന്ന് ഞാൻ കഴുതുന്നു ഇവരെ രണ്ടുപേരെയുമാണ് എനിക്ക് കൂടുതൽ പ്രിയമുള്ളവർ ഫിക്ഷൻ എഴുതുന്നത് എൻ്റെ യഥാർഥ ഒരു ടാലൻ്റായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മുഴുവൻ ലോകങ്ങളെയും കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമായി ഞാനതിനെ ഇഷ്ടപ്പെടുന്നു